വളരെ ഉൽസാഹത്തോടെയാണ് ഞാൻ എൻ പി എസിനെ സ്വാഗതം ചെയ്ത് അതിൽ ജോയിൻ ചെയ്യുക വേണ്ടിയിട്ട് ഞാൻ എൻ പി സപ്ലയ് ചെയ്തത് പക്ഷെ ഇതുവരെയായിട്ട് എൻ്റെ എനിക്കൊരു സർപ്രൈസായിട്ട് നിൽക്കുകയാണ് എനിക്ക് ഇതുവരെയായിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റിയിട്ടില്ല അതു കൊണ്ടു തന്നെ ദയവായിട്ട് നിങ്ങളെൻ്റെ ആപ്ലിക്കേഷൻ എൻ്റെ ഞാൻ കൊടുത്ത അപേക്ഷയുടെ ഒരു സ്റ്റാറ്റസ് പറഞ്ഞാൽ കൊള്ളാം തീർച്ചയായിട്ടും എൻ്റെ പ്രാൺ നമ്പർ പ്രാൺ നമ്പർ പിന്നെ സീറോ സീറോ ത്രീ ആണ് അതേ പോലെ തന്നെ ആധാർ നമ്പർ പിന്നെ വൺ വൺ ടു ത്രീ ആണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ എൻ പി എസിൻ്റെ പിന്നെ ആപ്ലിക്കേഷൻറ്റെ നിജസ്ഥിതി അറിയണം കാരണം ഞാൻ ഇതിന് പിന്നെ അടക്കാൻ താമസിക്കുന്തോറും എൻ്റെ പെൻഷൻ്റെ ഇതും എനിക്ക് ആനുകൂല്യങ്ങളും താമസിക്കുന്നുണ്ട് ഇതു കൊണ്ട് അപ്പം തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ ഈ പിന്നെ നാഷണൽ പെൻഷൻ സ്കീമിലെ അംഗമാകാനായിട്ട് ഞാൻ ചേർന്നു കഴിഞ്ഞാലെ എനിക്ക് എനിക്ക് പത്ത് പേരോട് ഇതിനെ ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയാനൊക്കത്തുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു കാലതാമസം ഇനിയും ഉണ്ടാകാം തുടർന്നു പെട്ടെന്നു തന്നെ എൻ്റെ അപേക്ഷ ടെ നിജസ്ഥിതി അറിയിക്കണമെന്നു ഞാൻ താൽപ്പര്യപ്പെടുന്നു